വളരെ നല്ല രാഷ്ട്രീയമാണ് ഇന്ത്യയിലുള്ളത് നല്ല നല്ല രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നല്ല ശക്തരായതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നല്ല ഭരണം കാഴ്ച്ച വെക്കാൻ പറ്റുന്നു ഏതൊരു രാഷ്ട്രമായാലും അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷത്തെ പോലെത്തന്നെ വളരെ നല്ലതാണെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് നല്ല ഭരണം കിട്ടുകയുള്ളു ഒരു ജനാധിപത്യം എന്ന നിലയിൽ ഇന്ത്യയിൽ ഏതൊരു വ്യക്തിക്കും തുല്യ അവസരം ലഭിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതിന് ഒരു ഉദാഹരണം തന്നെയാണ് ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഇന്ത്യയുടെ പ്രസിഡന്റ് അതും വനിതാ പ്രസിഡന്റ് മാത്രമല്ല ഏതൊരു ആൾക്കും ഒരു കഴിവുള്ള ഏതൊരാൾക്കും തുല്യ അവസരം കൊടുക്കുക എന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു നല്ലൊരു ഗുണം തന്നെയാണ് പക്ഷെ ജനാധിപത്യ ഇന്ത്യയെ പോലെ വലിയൊരു രാജ്യത്തിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ജനസംഖ്യ വളരെ അധികമായത് കൊണ്ട് തന്നെ മുഴുവൻ ജനങ്ങളിലോട്ടും ഗവണ്മെന്റിൻ്റെ പരിപാടികൾ എത്തിക്കാൻ ഉള്ള സംവിധാനത്തിൻ്റെ കുറവ് അത് നല്ലൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് കുറച്ചു കൂടി ശക്തിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇഷ്ടപ്പെട്ട ഒരു നേതാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വളരെ ആദർശനീയനായ ഒരു വ്യക്തി തന്നെയാണ്

ആഭ്യന്തര കാര്യങ്ങളിലാണെങ്കിലും വിദേശ കാര്യങ്ങളിലാണെങ്കിലും മൂപ്പരുടെ നിലപാടുകൾ വളരെ ദൃഢവും അചഞ്ചലവുമായ നിലപാടുകൾ പ്രശംസനാർഹീയം തന്നെയാണ് മൂപ്പരെ കാണുകയാണെങ്കിൽ മൂപ്പരോട് ചോദിക്കാനുള്ളത് ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് അടുത്ത ഇലക്ഷനിൽ മൂപ്പരുടെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വിജയം കൈവരിക്കാനാകുമോ എന്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച്ചപ്പാട് എന്നുള്ളത് തന്നെയാണ് പിന്നെ പോരാത്തതിന് ഭാവി ഇന്ത്യയിലെ പദ്ധതികൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും അടിസ്ഥാന സൗകര്യം മാത്രമല്ല വേസ്റ്റ് മാനേജ്മന്റ് മുതലായ കാര്യങ്ങളിൽ കുറച്ച് ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാൻ താൽപര്യപ്പെടുന്നു